ഒരു സാധാരണ മലയാളിക്ക് ഒരു ദൂരെ യാത്രയ്ക്ക് പറ്റിയത് ട്രെയിൻ തന്നെയാന്ന് എന്തുകൊണ്ടും ബസ്സിനെക്കാളും നല്ലത് ട്രെയിൻ യാത്ര തന്നെയാന്ന് നമ്മൾ ബസ്സിന് കൊടുക്കുന്ന അത്രയും പൈസ നമുക്ക് ട്രെയിൻ യാത്രക്ക് വേണ്ട അതുമല്ല നമ്മൾ ബസ്സിൽ പോകുന്നതിനേക്കാളും വേഗത്തിൽ ഞമക്ക് ട്രെയിനിൽ പോയാൽ എത്തും എനക്ക് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പോണങ്കിൽ ഞാൻ ബസ്സിൽ പോകുന്നതിനേക്കാളും എത്രയോ വേഗം ട്രെയിനിൽ എനിക്കവിടെ എത്താം ട്രെയിനിൻ്റെ ഒരു പ്രധാന ഗുണമായിട്ട് എനക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാന്ന് നമുക്ക് വേഗത്തിൽ എത്താന്നുള്ളതും നമുക്ക് കുറഞ്ഞ പൈസയാന്ന് ഒരു സാധാരണ ആൾക്കാർക്ക് ഒരു ട്രെയിനിൽ പോണങ്കിൽ അത് അത്ര അത്ര പൈസ മതി നമുക്ക് ബസ്സിന് കൊടുക്കുന്നതിനേക്കാളും കുറഞ്ഞ പൈസ മതി ഇനി ട്രെയിനിലാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മറ്റുള്ള വാഹനത്തിനെക്കാളും നമുക്ക് അതിൻ്റകത്ത് സൗകര്യമുണ്ട് നമുക്ക് ഇരിക്കാം ഇരിക്കാം ഇനി നമുക്കൊന്ന് കിടക്കണം എന്ന് വച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബർത്തിൽ കിടക്കുകയും ചെയ്യാം അങ്ങനെയുള്ള ഉള്ള ഒരു ഇതുണ്ട് ഒരുപാട് കുലുങ്ങോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല ഒരു രോഗിയെയും കൊണ്ട് പോകുന്നെങ്കിലും നമുക്ക് നല്ലത് ട്രെയിനിൽ പോകുന്നത് തന്നെയാന്ന് ഒരു ബോഗിക്ക് എട്ട് ചക്രം അങ്ങനെയാന്ന് ട്രെയിനിന് ഉണ്ടാവുക അതായത് ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ് ജനറൽ കമ്പാർട്ട്മെൻറ് എ സി കമ്പാർട്ട്മെൻറ് ഇങ്ങനെയാന്ന് കമ്പാർട്ട്മെൻറ് ഉണ്ടാവുക ഒരു ജനറൽ കമ്പാർട്ട്മെൻ്റിൽ തൊണ്ണൂറ് സീറ്റ് ഉണ്ടാകും ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ എൻജിൻ ഉണ്ടാകും ബേക്കിൽ ഗാർഡിൻ്റെ ഒരു ക്യാബിൻ ഉണ്ടാകും അപ്പോൾ ഇത് ഇപ്പോളത്തെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദം ഒന്നും ഉണ്ടാവില്ല എലക്ട്രിക്കൽ ട്രെയിൻ ആയതു കൊണ്ട് തന്നെ വലിയൊരു സൗണ്ട് ഒന്നും ഉണ്ടാവില്ല എന്തുകൊണ്ടും നമുക്ക് ഒരു ദൂരയാത്രക്ക് ആയാലും അല്ലേ ഒരു രോഗിയെയും കൊണ്ട് ആയാലും നമുക്ക് പോകാൻ നല്ലത് ട്രെയിൻ തന്നെയാന്ന് ഒരു സാധാരണക്കാരന് അവരുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ചിട്ട് പോണെങ്കിൽ നമുക്ക് ട്രെയിൻ യാത്ര തന്നെയാന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് ട്രെയിനിൽ പോയിട്ടുണ്ട്